എൻ്റെ വീട്ടിലുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകാരണങ്ങളെന്ന് പറയുന്നത് എ സി വാഷിംഗ് മെഷീൻ ടി വി കംപ്യൂട്ടർ ഇൻഡക്ഷൻ കുക്കർ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ തുടങ്ങിയവയൊക്കെയാണ് എൻ്റെ വീട്ടിലുപയോഗിക്കുന്നത് അവ എന്ത് കൊണ്ടെന്ന് ചോദിച്ചാൽ ജോലി എളുപ്പമാക്കാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വീട്ടിലുള്ള കഷ്ടപ്പാടുകൾ സാധനങ്ങൾ അത് വീട്ടിൽ മറ്റുള്ളവർ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അതിൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സംതൃപ്തപ്പെടുത്താൻ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ആണ് ഇതിൽ മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കൂടാതെ ഫ്രിഡ്ജ് ഞങ്ങൾ വാങ്ങിയിട്ട് ഒരു അഞ്ചാറ് കൊല്ലമായി ഇപ്പോഴും മികച്ച പെർഫോമൻസ് ആയിരുന്നു അതിന്റേത് പിന്നെ അഞ്ച് സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് ആണ് ഇപ്പോഴും നല്ല പെർഫോമൻസ് ആണ് നല്ല കൂളിംഗ് ആണ് എ സിയും അങ്ങനെ തന്നെയാണ് നല്ല കൂളിംഗ് ആണ് കൂടാതെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് വാങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷമായി വീട്ടിൽ വാങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ ചെറിയ തകരാറൊക്കെ വരുന്നുണ്ട് അത് ഒരു ഓണത്തിന് ഓഫറിന് എടുത്തതാണ് വാഷിംഗ് മെഷീൻ ടി വി മുന്നേ ഉണ്ടായ ടി വി മുമ്പുണ്ടായ ടി വി മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ സ്മാർട്ട് ടി വി വാങ്ങിച്ചു മുന്നെ ഉണ്ടായത് സാധാരണ ടി വി ആയിരുന്നു ഇപ്പോൾ സ്മാർട്ട് ടി വി വാങ്ങിച്ചു സ്മാർട്ട് ടി വി ഉണ്ടായത് കൊണ്ട് തന്നെ വൈഫൈ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് യൂട്യൂബ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് മറ്റ് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ദൃശ്യ മികവാണ് സ്മാർട്ട് ടി വിയിൽ കിട്ടുന്നുള്ളത് നല്ല സൗണ്ട് എഫക്റ്റ് നല്ല സ്പീക്കർ നന്നായി മ്യൂസിക് കാണാനും സിനിമ കാണാനും എല്ലാം സാധിക്കുന്നുണ്ട് പിന്ന മൈക്രോവേവും ഉണ്ടായത് ഒന്ന് നശിച്ച് പോയി ഒന്ന് നശിച്ച് അതൊന്ന് ഒരു പ്രാവശ്യം റിപയർ ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും നശിച്ച് പോയി അതങ്ങനെ കളഞ്ഞു പിന്നീടുള്ളത് കംപ്യൂട്ടർ കംപ്യൂട്ടർ വീട്ടിലില്ല ലാപ്ടോപ്പ് ഉണ്ട് വീട്ടിൽ ലാപ്ടോപ്പ് അസ്യൂസിൻ്റെ ടഫ് എഫ് ഫിഫ്റ്റി ആയിരുന്നു വാങ്ങിച്ചിട്ടുള്ളത് അത് നല്ല പെർഫോമൻസ് പെർഫോമെൻസ് ഉള്ള ലാപ്ടോപ്പ് ആയിരുന്നു ഒരു ന്യൂ ഇയറിനായിരുന്നു അത് വാങ്ങിച്ചത് ഇപ്പോഴും നല്ല പെർഫോമൻസ് ആണ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് അത് വാങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി ശരിയായിട്ട് വർഷങ്ങൾ ഓർമ്മയില്ല എന്നാലും അത്യാവശ്യം ഇപ്പോഴും നല്ല മികച്ച് നിൽക്കുന്ന ലാപ്പ് ആണ് ടഫ് എഫ് ഫിഫ്റ്റിൻ്റെ ഗെയിം നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ വിശ്വൽ ക്വാളിറ്റി വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് ഓഡിയോ ഉണ്ട് കൂടാതെ നല്ല മെമ്മറിയും നല്ല കൂടുതൽ ജി ബിയും നല്ല റാമും എല്ലാ ഉള്ള നല്ല മികച്ച ലാപ്പ് ആണ് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ഗെയിമിങ് ലാപ്പ് ആയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഉണ്ട് പക്ഷേ ഈ ഗെയിമിങ് ലാപ്പിനുള്ള ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് അത് ബാറ്ററി ബാക്ക്അപ്പ് കുറവാണ് കാരണം ഒരു ഗെയിമിങ് ലാപ്പ് ആയത് കൊണ്ട് തന്നെ മറ്റൊരു ലാപ്പിനെ അപേക്ഷിച്ച് സാധാരണയായി ബാറ്ററി ബാക്ക്അപ്പ് കുറവായിരിക്കും പക്ഷേ ചാർജ്ജിന് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം ബാ ചാർജ്ജിന് വയ്ക്കാണ്ട് ഉപയോഗിക്കുമ്പോഴാണ് മറ്റുള്ള ഒരു ഒരു ലാപ്പ് ഒരു അഞ്ച് മണിക്കൂർ തരുന്നതാണെങ്കിൽ ഗെയിമിങ് ലാപ്പ് ഒരു മൂന്ന് മണിക്കൂർ അത്ര മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ പക്ഷേ ബാക്കിയെല്ലാം പെർഫോമൻസ് വൈസ് മറ്റേതൊരു ലാപ്പിനേക്കാളും നല്ല മികച്ച് നിൽക്കുന്ന ഒരു ലാപ്പ് ആണ് അസ്യൂസിൻ്റെ എഫ് ഫിഫ്റ്റി ഗെയിമിങ് ലാപ്ടോപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് കൂടിയാണ് അസ്യൂസിൻ്റെത് അസ്യൂസിൻ്റെ ബാക്കിയെല്ലാം ഫോൺ ഒക്കെ മോശമാണെങ്കിലും ഞാൻ ലാപ്ടോപ്പിന് നല്ല രീതിയിൽ കൂടെ നിൽക്കുന്നുണ്ട്